ഇപ്പോൾ പത്രങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ ജില്ലയിലെ പ്രാദേശിക പത്രങ്ങളൊക്കെ ധാരാളുണ്ട് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് പ്രാദേശിക വാർത്തകളെ നമുക്ക് പല വാർത്തകളും കാര്യങ്ങളൊക്കെ നമുക്ക് മാധ്യമങ്ങളിലൂടെയൊക്കെ ലഭിക്കും മാധ്യമങ്ങളുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പത്രങ്ങളുണ്ട് അതുപോലെത്തന്നെ ടി വി അതൊക്കെ നമ്മുടെ ഒരു മാധ്യമം തന്നെയാണ് അപ്പൊന്നു വെച്ചിട്ടുണ്ടെങ്കി നമുക്കിപ്പോൾ എന്തെങ്കിലും അതായത് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് വിവരങ്ങളും അറിയണെങ്കി നമുക്ക് ഇപ്പോൾ പത്രം നോക്കിയാൽ മതി ഇപ്പൊ നമുക്ക് നമ്മുടെ ജില്ലേൻ്റെ കാര്യണെങ്കി നമുക്ക് അതായത് നമ്മുടെ പത്രത്തിൻ്റെ നമ്മുടെ ജില്ലേൻ്റെ മാത്രായിട്ടുള്ള പല ന്യൂസുകളും നമുക്ക് ഒരു പേജില് ഫുള്ളായിട്ട് തന്നെയുണ്ടാവും പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോക വാർത്ത അതായത് അങ്ങനെയുള്ള പല വാർത്തകളും നമുക്ക് കിട്ടും ഇപ്പോൾ നമുക്ക് ദേശാഭിമാനിയുണ്ട് മാതൃഭൂമിയുണ്ട് മാധ്യമം ഉണ്ട് പിന്നെ മലയാള മനോരമയിണ്ട് അങ്ങനെ എൻ്റെ വീട്ടില് വരുത്തുന്നത് പിന്നെ വരുത്തുന്നത് മലയാള മനോരമയാണ് പിന്നേന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെത്തന്നെ ഇപ്പോൾ പത്രം വരുത്തുന്നില്ലെങ്കിൽ നമുക്ക് ടിവിത്തന്നെ എത്രയോ ന്യൂസ് ചാനലുകളുണ്ട് നമുക്ക് അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കറിയേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും